ഹായ് ഞാൻ ഈയിടെ ഒരു പാൻ കാർഡിന് അപേക്ഷിച്ചിരുന്നു അതിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്നറിയാനാണ് ഞാൻ ഈ വിളിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നെനിക്ക് പെട്ടെന്ന് തരാമോ അതിൻ്റെ ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം എൻ്റെ ഐ ഡി നമ്പറ് എ ബി സി ഡി ഇ വൺ ടു ത്രീ ഫോർ എഫാണ് എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി രണ്ട് ഈ ഈ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എത്രെയും പെട്ടെന്ന് എൻ്റെ ആ പാൻ കാർഡിൻ്റെ അവസ്ഥയൊന്ന് അവസ്ഥയൊന്ന് അറിയിക്കണം സമയം തന്നതിനു നന്ദി